ആ ഓക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നുണ്ട് സുൽത്താൻ ബത്തേരി നമ്മുടെ ഇവിടെ നാൽപ്പത് തരം ഫുഡ് ഐറ്റംസ് ഉണ്ട് ട്രഡീഷണൽ ആയിട്ട് വരുന്നത് മീൽസ് വരുന്നുണ്ട് പിന്നെ മോർണിംഗ് ആണെങ്കിൽ ബ്രേക്ക് ഫാസ്റ്റ് ആണെങ്കിൽ പുട്ട് കടലക്കറി അപ്പം ദോശ ഇടിയപ്പം പുട്ട് നെയ് റോസ്റ്റ് മസാലദോശ അതെ അങ്ങനെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഊണിന് പത്തുകൂട്ടം ട്രഡീഷണൽ കറികൾ ഇണ്ട് അച്ചാർ പപ്പടം തോരൻ സാമ്പാർ അവിയൽ ഇഞ്ചിപ്പുളി അങ്ങനെ പല ഘട്ടമുണ്ട് പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ട് ഫിഷ് ഫ്രൈ ബീഫ് പോർക്ക് ചെമ്മീൻ മീൻ പല ഐറ്റംസ് ഉണ്ട് മീൻ അയല മത്തി ചാള നെയ്മീൻ ചെമ്മീൻ ആ കരിമീൻ ഉണ്ട് ചിക്കൻ മട്ടൺ ബീഫ് പോർക്കും ഉണ്ട് ആ എല്ലാ ടൈമും വരുന്നുണ്ട് നമ്മൾ നമ്മളെ നോർമൽ ഇത് വരുന്നത് എയ്റ്റി റുപ്പീസ് ആണ് പ്ലസ് നമ്മൾ അഡീഷണൽ സ്പെഷ്യൽ ഐറ്റം ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ പ്രൈസ് വരും

ട്രഡീഷണലായിട്ടുള്ള ആ പത്ത് കൂട്ടം കറികൾ ഉണ്ടാകും ആ പിന്നെ രണ്ട് ടൈപ്പ് പായസം അതും ഇൻക്ലൂഡെഡ് ആണ് സുൽത്താൻ ബത്തേരി തന്നെ ടൗണിൽ തന്നെ ആണ് ഓക്കെ നിങ്ങൾക്ക് പാർസൽ ആണോ വേണ്ടത് അതോ ഇവിടുന്ന് തന്നെ കഴിക്കാനാണോ ആ ഓക്കെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഓക്കെ താങ്ക്യൂ യൂ